നമ്മളെ നാടിപ്പം നന്നായിട്ട് വികസിച്ചിട്ടുണ്ട് നമ്മുടെ താമസസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടു നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളിപ്പോള് ഫോണിലൂടെ തന്നെ ഓർഡര് ചെയ്യുമ്പക്ക് അതേപോലെ തന്നെ പണ്ട് കാലത്ത് ഫോണില്ലനി ഇപ്പോള് ഫോണുണ്ട് ഫോണ് കൊണ്ട് വളരെ ഉപകാരങ്ങളുണ്ട് ഇപ്പോള് ഫോണുപയോഗിച്ച് പഠിക്കാൻ കഴിയും അതുപോലെ വേറൊരാൾക്കാരെ വിളിക്കാൻ കഴിയും അതുപോലെ നമുക്കു കണ്ട് വിളിക്കാം പിന്നെ വോയ്സാണങ്കില് അങ്ങനെ വിളിക്കാം മെസ്സേജ് ചെയ്യാം അങ്ങനെ കുറേ സംവിധാനമിപ്പോള് നമ്മുടെ നാട്ടിലുണ്ട് അതേപോലെ നമ്മളെ താമസസൗകര്യങ്ങളൊക്ക മെച്ചപ്പെട്ടു പണ്ട് ഓലമേഞ്ഞ വീടുകളും അതേപോലെ പുല്ലു മേഞ്ഞതൊക്കെയായിരുന്നു ഇപ്പോള് നമ്മുടെ വീടുകള് വാർപ്പുണ്ട് അതേപോലെ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ നമുക്കെല്ലാവർക്കും ഉണ്ടിപ്പോള് അതുപോലെ തണുപ്പിന് വേണ്ടിയിപ്പോള് ഫാനുണ്ട് എ സിയുണ്ട് അങ്ങനത്തെ ഉപകരണങ്ങളൊക്കെ കുറേയുണ്ട് കംപ്യൂട്ടറുകളുണ്ട് ജോലി ചെയ്യാന് അപ്പോള് ജോലി സാധ്യതകളൊക്കെ നമ്മുടെ നാട്ടില് കുറേയുണ്ട് അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാര് പുറത്ത് പോയി പഠിക്കുന്നുണ്ട് നമ്മുടെ വിദ്യാഭ്യാസം അതൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സൗകര്യങ്ങളും അതേപോലെ നമുക്ക് പഠിക്കാനുള്ള ഉപകരണങ്ങളും എല്ലാം നമുക്കിപ്പോള് എല്ലാം നല്ലവണ്ണം ലഭിക്കുന്നുണ്ട് നമുക്കിപ്പോള് പഠിക്കാന് ബഞ്ചുണ്ട് ഡെസ്ക്കുണ്ട് എല്ലാം നമുക്കിപ്പൊണ്ടീനി പണ്ട് കാലത്തിപ്പം അതൊന്നും നമുക്ക് കിട്ടൂലേനു ഇപ്പോള് അതെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട് അതേപോലെ നമുക്കിപ്പോള് സഞ്ചരിക്കാന് കാറുകളുണ്ട് ബൈക്കുകളുണ്ട് പോവാന് ബസ്സുകളുണ്ട് പണ്ട് കാലത്ത് അതൊന്നും ഇല്ലായിരുന്നു നടന്ന് കൊണ്ടെക്കേനെല്ലാരും യാത്ര ചെയ്തിനത്